ഹലോ ആ ലക്ഷ്മീ ട്രാവെൽസാണ് ആ അതെ അതേ പറഞ്ഞുകൊള്ളൂ ആ ഓക്കെ മേഡം ആ എന്നത്തേക്കാണ് വേണ്ടത് മറ്റന്നാള് ആ പോകാമല്ലോ നിങ്ങളെത്ര പേരുണ്ട് സെവൻ സീറ്റര് വണ്ടിയുണ്ട് ആ ഓക്കെയപ്പം സെവൻ സീറ്റര് ഇന്നോവയുണ്ട് ടവേരയുണ്ട് ഏത് വേണമെങ്കിലുമെടുക്കാം ഓ പോകാന് പറ്റുമല്ലോ ആ ഓക്കെ എത്ര ദിവസത്തേക്കാണ് അവിടെ സ്റ്റേ ചേയ്യുന്നത് മൂന്നാറ് അതെ ഓക്കേ അപ്പോള് നിങ്ങള് ഡ്രൈവറുടെ ഫുഡ്ഡും താമസ സൗകര്യവുമൊക്കെ നിങ്ങള് അറേഞ്ച് ചെയ്യുമോ ആ ഓക്കെ ഓക്കെ ഉണ്ട് ആ ബുക്ക് ചെയ്യാന് പറ്റും ഇതിൻറ്റെ റേയ്റ്റ് വരുന്നത് ഞങ്ങളുടെ കിലോമീറ്റർ റേറ്റാണ് കൊടുക്കുന്നത് ഏ സി ഇട്ടിട്ടിത്രയെന്നും ഏ സി ഇല്ലാതെ ഇത്രയെന്നും റേയ്റ്റ് ഏ സി ഇട്ട് യാത്ര ചെയ്യുന്നതിന് ഇത്ര രൂപ ഏ സി ഇല്ലാതെ യാത്ര ചെയ്യുന്നതിന് ഇത്ര രൂപയെന്നുണ്ട് ഏ സിയിട്ട് പോകാം ആ ഓക്കെ അപ്പോള് മൂന്നാർ റ്റു കിലോമീറ്റര് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോള് അതിനുശേഷം ഞാൻ പറയാം ക്യാഷ് പറയാം മേഡം അത് നിങ്ങള് മറ്റേ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത് ഏഴ് പേരല്ലേ അതില് കുട്ടികളുണ്ടോ ഒരാളെയുള്ളുവോ അപ്പോള് നിങ്ങള് ഇന്നോവ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റര് എന്നാണ് എന്റെ അഭിപ്രായം

അത് ഏ സി ഏത് വണ്ടിയായാലും ശർദ്ദിക്കുന്നവര് ശർദ്ദിക്കില്ലേ മേഡം ആ ഓക്കേ ആ മൂന്നാർ റ്റു വയനാട് നിന്ന് മൂന്നാറിലേക്ക് പോകാന് ഏകദേശം പതിമൂവായിരം രൂപ വരും പിന്നെ എക്ട്ര ചാർജ്ജ് നിങ്ങള് അവിടെ സ്റ്റേ ചെയ്യുന്നതിന്റെ രൂപയും നിങ്ങള് ചെയ്യേണ്ടിവരും കേട്ടോ ആ ഓക്കെ അതെ ടവേരയൊക്കെയാകുമ്പോള് കുറച്ചുകൂടെ കുറയും ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ടിന് ചെയ്യാന് പറ്റും ആ ഓക്കെ ഓക്കെ ശരിയെന്നാല്